ഞാന് ഇഷ്ടപ്പെടുന്നത് ആട് ഞങ്ങളുടെ അടുത്ത് ഒരു ആട് വളർത്തുന്ന കേന്ദ്രമുണ്ട് അവിടെ നിന്ന് ഞാൻ ആടുകളെ മേടിക്കും ആടുകൾ മീൻസ് ചെറിയ ആടിനെ മേടിച്ചിട്ട് അതിനെ വളർത്തി ഒരു രണ്ടായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ മുവായിരം രൂപയ്ക്ക് ഒരു കുഞ്ഞാടിനെ മേടിച്ചാൽ അത് വിൽക്കുമ്പോളെത്തേക്ക് അത് വലുതായി കുറച്ച് വലുതായി കഴിയുമ്പോളെത്തേക്ക് അതിനെ വിൽക്കും അതിനെ വിറ്റിട്ട് അതിനകത്തുനിന്ന് എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും നല്ല ബെനിഫിറ്റ് ഉണ്ടാകും അത് ഒരാടിനെ കൊടുത്താൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് ഞാൻ മേടിക്കും ആ നാലഞ്ചെണ്ണം മേടിച്ചിട്ട് നല്ല ഒരു ലാഭത്തിൽ തന്നെ എനിക്ക് വിൽക്കാൻ സാധിക്കും നല്ല തീറ്റി പാ അതിനെ തീറ്റി കൊടുക്കാനാണെങ്കിൽ തീറ്റി കൊടുക്കാനും ഇഷ്ഠംപോലെ ഇവിടെ സ്ഥലങ്ങൾ അടുത്ത വീട്ടിലും ഇഷ്ഠം പോലെ സ്ഥലങ്ങളുണ്ട് അപ്പം ആടിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാ ബുദ്ധിമുട്ടും അവിടെ നമുക്ക് അനുഭവപ്പെടുന്നില്ല പിന്നെ അങ്ങനെ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ആടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇപ്പം പറയുവാണെങ്കിൽ പല പ്രാവശ്യമായിട്ട് ഒരു ആടിൽ നിന്ന് എനിക്ക് ചെലപ്പം മുവായിരം രൂപ നാലായിരം രൂപ ലാഭം കിട്ടും ഒ അങ്ങനെ അങ്ങനെ ചിലപ്പോൾ അഞ്ചാറ് ആടിനെയൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് നല്ല ഒരു നല്ല ഇത് ബെനിഫിറ്റ് ആണ് ഒരു ചിലപ്പം ഒന്ന് വിറ്റ് കഴിയുമ്പം പി അടുത്തതിനെ മേടിക്കുക മേടിക്കുക ഒരു ഒരു ടേമിൽ തന്നെ എനിക്കൊരു ഏറ്റവും കുറഞ്ഞത് ഒരു പത്തിരുപതിനായിരം രൂപ ലാഭം കിട്ടും